കൂടുതലായിട്ടും ഞാൻ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ നടക്കുന്ന പാചകവിദ്യകളെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ക്ലാസ്സുകൾ കാണാറുണ്ട് പിന്നെ പാ പാചകത്തെക്കുറിച്ച് പറയുന്ന പല വിഡിയോസും കാണാറുണ്ട് അപ്പോൾ അതിൽ നല്ലത് നോക്കീട്ട് ഇപ്പം നമ്മൾ ചിക്കൻ വെക്കാനാണെങ്കിൽ ചിക്കൻ വെക്കാനുള്ളത് നോക്കീട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നല്ല ചിക്കൻ കറി ഏതാന്നൊക്കെ നോക്കും അങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചിലത് ക്ലിക്കാവും ചിലത് ക്ലിക്കാവൂല അപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടാവാം അത് ക്ലിക്കാവാത്തത് അപ്പം നല്ല രീതിയിലുള്ള പാചകങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ടും യൂട്യൂബ് ചാനൽ ആണ് സമീപിക്കാറ് അതാവുമ്പോൾ നമുക്ക് ഇഷ്ട്ടമുള്ള സമയത്ത് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നതാണ് അപ്പം നമുക്ക് നമ്മളിപ്പോൾ രാവിലെയല്ല നമ്മളിപ്പോൾ ഉച്ചസമയത്താണ് കറികളൊക്കെ വെക്കുന്നത് എങ്കിൽ ആ സമയത്ത് പോയിട്ട് നമുക്ക് ഓപ്പണാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതാണ് അപ്പം കൂടുതലായിട്ട് ഞാൻ ആ സമയത്താണ് ഉണ്ടാക്കാറുള്ളത് ഇത് നോക്കാറ്